ആ ആ ചേട്ടനു മനസ്സിലായില്ലേ ന്നാ വിളിക്കുന്നേ ആണോ ആ ആ ആ ആ ചേട്ടാ നമ്മള്ക്കു കുറച്ച് മീന് വേണമല്ലോ എന്നാ ഒക്കെയുണ്ട് ചേട്ടന്റെ കയ്യില്

നമുക്ക് നമുക്ക് നമുക്ക് ചെറിയ മീനുകള് മതി എന്നുവച്ചാല് നമ്മള് ഉപയോഗത്തിന് അതാണ് നല്ലത് കാരണം നമ്മളൊരു നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന സംഭവമാണേ അപ്പോള് അതുകൊണ്ട് കുറച്ചു ചെറിയ മീനുകളാണ് നമുക്കു വേണ്ടത് അപ്പോള് ചെറിയ മീനുകള് നമുക്കതു വെട്ടി വൃത്തിയാക്കി കിട്ടുമോ

ആ അതു നമ്മള് വെട്ടിയ മീനുകളാണ് നമ്മള്ക്കു താല്പര്യം എന്നാന്നുവച്ചാല് നമ്മള് ഹോസ്റ്റലിലാണ് ഹോസ്റ്റലാണേ അപ്പോള് ഹോസ്റ്റലിലേക്ക ആകുമ്പോഴത്തേന് അത് വെട്ടിക്കിട്ടുന്നതാണു നമുക്കു സൗകര്യം അതുദ്ദേശിച്ചാണ് എനാ വിലയാണു മീനിന്

ഉം ഉം ഉം ഉം തളയെന്നു പറഞ്ഞാല് ഒരു മുഴുത്ത മീനല്ലേ നമ്മള് അത്രയും മുഴുത്ത മീനിൻ്റെ ആവശ്യമില്ല മത്തി അയില അയിലയാണ് നമുക്ക് വേണ്ടത് അപ്പോള് അയലയൊക്കെ നമുക്ക് വെട്ടി വൃത്തിയാക്കി കിട്ടുന്നതാണ് നമ്മളുടെ ഒരിത് നമുക്കിവിടെ വന്നുകഴിഞ്ഞാലത് കഴുകി നമുക്ക് കറി വയ്ക്കുക എന്നുള്ള ഒരു രീതിയാണ് നമക്ക് ഒരു അഞ്ച് കിലോ എങ്കിലും വേണം ഡെയിലി അത് ഒരു ഒരു ദിവസത്തേക്കല്ലേ കേട്ടോ നമുക്ക് റെഗുലറായിട്ട് വേണ്ടിവരും പിന്നെ ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളില് ഞായറാഴ്ച ഹോസ്റ്റല് വർക്കിംഗല്ല ആ ഇപ്പോള് പിള്ളേരൊക്കെയാണ് പിള്ളരൊക്കെ അവര് അവരുടെ വീടുകളിലേക്കൊക്കെ പോകും അല്ലെങ്കില് എണ്ണം കുറയും അങ്ങനൊക്കെയുള്ള ഇ ഉണ്ട് അപ്പോള് നമുക്ക് ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളില് അഞ്ച് കിലോ നാല് കിലോ അഞ്ച് കിലോ എന്നുള്ള റേഞ്ചില് നമുക്ക് മീനിൻ്റെ ആവശ്യം വരും ആ വേണ്ട വേണ്ട വേണ്ട അത് അത് നമുക്ക് എത്തിച്ചുതരുന്നാണ് നമുക്ക് സൗകര്യം പക്ഷെ അത് അങ്ങനെ അസൗര്യം ഉണ്ടെങ്കില് ഏതെങ്കിലുമൊരു ദിവസം നമുക്ക് ഒക്കെ എടുക്കാൻ പറ്റും അതിനാളെ വിടാം എല്ലാ ദിവസവുമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല നിങ്ങള്ക്ക് അസൗകര്യം ബുദ്ധിമുട്ടുണ്ടാകുന്ന ദിവസങ്ങളില് ദിവസങ്ങളിലൊക്കെ എടുക്കാം ഇല്ലേ ഇല്ലെങ്കില് അന്നേരം ഇപ്പോള് ചെറിയ മീന് ഈ നത്തോലി പോലുള്ള ചെറിയ മീനുകളൊക്കെയില്ലേ ചെറിയ പൊടി മീനുണ്ടല്ലോ അതു വരത്തില്ലേ ആ ചെറിയത് അതാണു പറഞ്ഞേ അത് ഒരു ണൊക്കെ കഷണമൊക്കെ വച്ചുകൊടുക്കുമ്പോളത് ഒരെണ്ണം വച്ചുകൊടുക്കു തെ എണ്ണം ചോദിച്ചുച്ച കൊടുക്കുമ്പോള് അതൊക്കെ നമുക്ക് തൊക്കെ പോവാല്ലോ ആ ഇല്ല നമുക്ക് ഇത് ഇപ്പോള് ഇതിൻ്റെ നടത്തിപ്പേയുള്ളൂ നമ്മളത് നമ്മളത് ഇവിടെ കാന്റീൻ പിടിച്ചിരിക്കുന്നതാണ് അവരുടെ ഹോസ്റ്റലിൻ്റെ ക്യാന്റീൻ പിടിച്ചിരിക്കുന്നതാണ് അപ്പോള് ആ പിടിച്ച ഇതിൻ്റെ കാര്യങ്ങളളേ ഉള്ളൂ വേറെ ഹോസ്റ്റല് നമുക്കില്ല ആ അത് നമുക്കു നമ്മള് പുറത്തു നമുക്ക് കാറ്ററിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് അതായത് നമുക്ക് ചെറിയ പരിപാടികളൊക്കെ വർക്കുകളൊക്കെ നമ്മള് പിടിക്കും കല്യാണമോ അങ്ങനെയൊക്കെയുള്ളതു പിടിക്കും അങ്ങനെ സമയത്തു പിടിക്കും ഇല്ല ഞങ്ങള് ഇത് ഇങ്ങനെ സെൻഗേറ്റ്സ് കോളേജറിയാമോ ഇവിടെ ആ അവിടെയാണ് അവിടവിടെ ആ ഉണ്ടുണ്ട് ആ അതു പിന്നെ വലിയ പിള്ളേരല്ലേ അവര് ഇതു പറഞ്ഞതുപോലെയല്ല ഈ ഇവർക്കൊക്കെ നമുക്ക് ഉണ്ടാക്കിവയ്ക്കാമെന്നു മാത്രമേ ഉള്ളൂ ഇവരെല്ലാം പുറത്തുപോയാണു കഴിക്കുന്നത് ഈ പിള്ളേര് പിന്നെ നമ്മള് നമ്മളുടെ ആ ഒരു ഉത്തരവാദിത്തത്തിനും ഒരു കടമയ്ക്കും നമ്മള് അതെല്ലാം ചെയ്തുവയ്ക്കും കാരണം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മള് പിടിച്ചുകഴിഞ്ഞാല് നമുക്ക് നമ്മളത് ഓൾറെഡി നമ്മള് സ്റ്റാർട്ടായിക്കഴിഞ്ഞു അപ്പോള് ഇന്നും നാളത്തേക്കുമുള്ള മറ്റന്നാള് മുതലത് അതായത് ബുധനാഴ്ച മുതല് സാധനം കിട്ടണം ആ ബുധനാഴ്ച മുതല് നമുക്കു കിട്ടും ഓക്കെ ഓക്കെ ഓക്കെ